ഹലോ അതെ തരാമല്ലോ എന്താണ് വേണ്ടത് കിട്ടും എന്ത് ബിരിയാണിയാണ് വേണ്ടത് മട്ടൻ കറി ചിക്ക് ആ നല്ല ചൂട് സാധനങ്ങളാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാണ് നല്ല ചൂടുണ്ട് അത് ആ ഞങ്ങളുടെ പുതിയ റെസ്റ്റോറൻറ് ആണ് ഒരു പഴകിയ സാധനവും ഇല്ല എല്ലാ സാധനങ്ങളും പുതിയതാണ് അഞ്ച് കിലോമീറ്ററിനകത്തുള്ള അകത്ത് ഞങ്ങൾ ഓർഡർ എടുക്കുന്നതാണ് അതിന് എക്സ്ട്രാ എക്സ്ട്രാ പൈസ ഇത്തിരി വേണം ആ അതെ അഞ്ഞൂറ് രൂപ

രണ്ട് പേർക്കും വയർ നിറയെ കഴിക്കാനുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്

ആ ചൂടോട് തന്നെ കൊടുത്തുവിടും

കിട്ടും അഡ്രസ്സും ഫോൺ നമ്പരും പറ

കുരിയൻ മാത്യു മേൽക്കുന്നേൽ വീട്

പറഞ്ഞോ ആ ഇത് കൊണ്ടുവരുമ്പോൾ ഡെലിവെറി ബോയ് വിളിക്കും അര മണിക്കൂർ എടുക്കും അര മണിക്കൂർ എടുക്കും

ആ ഒരു നൂറ് രൂപ അഡ്വാൻസ് ഗൂഗിൾ പേ ചെയ്യുമോ ഓ ആ അതെ അതെ ആ ആ ആ ബാക്കി അവിടെ വരുമ്പം തന്നാൽ മതി

ആ ഫ്രഷ് സാധനവും നല്ല ചൂട് സാധനവും ആണ് ശരി ഓക്കെ ഓക്കെ